ഹലോ ഇത് ആര്യ ട്രാവൽസല്ലേ ആ ഞാനാണെങ്കിൽ ഒരു ഏഴ് മണിയാകുമ്പോൾ അവിടുള്ള ഒരു ടെമ്പോ എത്തിക്കാൻ വിളിച്ചതായിരുന്നു കുറച്ച് നേരത്തെ ഒരു ഏഴു മണിയായപ്പം സെറ്റാക്കിയതാണ് പിന്നെ ഇത്വരേം വണ്ടി ഇവിടെ എത്തിയിട്ടില്ല നിങ്ങളിപ്പോൾ കററ്റ് എവിടെയാണ് നിൽക്കണേന്ന് പറഞ്ഞിരുന്നെങ്കിൽ തിരുവനന്തപുരത്തോ ഓക്കെ ഓകെ തിരുവനന്തപുരം എപ്പോൾ ഇങ്ങ് എത്തും എന്താ സംഭവമെന്താണ് ഇത്ര താമസിച്ചെന്താണ് ആ വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റ് ആ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു വണ്ടി പറഞ്ഞ് വിട്ടാലും മതി ആ ഓകെ അപ്പോൾ തിരുവനന്തപുരത്തല്ലേ ആ മറ്റെ വണ്ടി വരാൻ എത്ര സമയം പിടിക്കും മൂന്ന് മണിക്കൂറോ ഓക്കെ അപ്പോയിനി കറക്റ്റ് എപ്പോൾ ഇവിടെയെത്തും ഇപ്പം ഏഴ് മണി ആയില്ലേ പത്തു മണിയാവുമ്പോൾ എത്തുല്ലേ അപ്പോൾ നിങ്ങളെ വണ്ടി കുറെ ദൂരാണോ ട്രിപ്പ് പോയേക്കാണ് ആ ഓക്കെ ഓകെ ട്രിപ്പ് പോയിട്ട് ഒരു പത്തു മണിയാകുമ്പോൾ വരും ആ അപ്പോൾ ഓകെ പത്തു മണിയാവുമ്പം വരണേ ഞങ്ങളിവടെ നിൽക്കാം ആ കുറെ നേരായിട്ട് നിൽക്കുന്നു ഇപ്പം പെട്ടന്ന് വന്നാൽ കൊള്ളായിരുന്ന് ആഹ് ശരിയെന്നാൽ പെട്ടന്ന് വരണേ പത്തു മണിയാവുമ്പം വരണം കേട്ടോ